ഹലോ ഇത് കണ്ണൂരുള്ള ടൈലറിംഗ് ഷോപ്പിലെ അവരല്ലേ സല്മ എന്ന് പറയണവര് ആ അതെനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരിത് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാണേ അപ്പോൾ പിന്നെ ഒരു ചുരിദാർ അടിക്കാന് വേണ്ടിയിട്ടാണ് അടുത്ത മാസത്തേക്കേ വേണ്ടൂ പിന്ന എങ്ങനെയാണ് റേറ്റ് നിങ്ങളത് വരിക

ഓക്കെ ഞാന് പറയുന്ന രീതിയിൽ അടിച്ചുതരില്ലേ

ആ ആ ആ ആ പിന്നെ വന്ന് ബ്ലൗസ് അടിക്കുന്നതോ

ആ ആ

ആ കല്യാണ ബ്ലൗസ് അന്നേരം വര്ക്കിനു വേണ്ട ഇത് അവിടെ ഉണ്ടാവുമോ അല്ലേ നമ്മൾ തന്നെ മേടിച്ചുതരണോ ആ ആആ അതെയോ ആ ആ ആ എന്നാൽ എത്രയാവും ഒര് ആ ആ ആ ആ ആ ശരി ഇത് കണ്ണൂർ എവിടെയാണ് സ്ഥലം വരുന്നത് ആ ആ ആ ശരി ശരി മ് ആ കുറേ ആ ആ കുറേ സമയം എടുക്കുവോ ഒരാഴ്ച കൊണ്ട് കിട്ടുവോ മ് മ് മ് ആ ഞാന് എന്നാൽ മെറ്റിരിയൽ വാങ്ങിയിട്ട് വിളിക്കാം എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് പറയാം എന്നാൽ ആ ശരി ആ താങ്ക്യൂ